ആ അല്ല കുറച്ച് പരുപാടി ഉണ്ട് ഓണത്തിന് അപ്പോൾ കുറച്ച് പൂവ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അവിടെ നമ്മൾ അവിടെ പൂക്കള മൽസരം ആണ് അപ്പോൾ കുറച്ച് വെറൈറ്റീ ആയിട്ട് കുറച്ച് കളർ കളർ പൂവ് എടുക്കണം കുറച്ച് അധികം എടുക്കണം ആ അല്ല എല്ലാ കളറും വേണം ഇതിനൊക്കെ എന്താണ് വില എന്താണ് കിലോ എത്രയാണ് എൺമ്പത് അല്ലേ ആ ആ വേറെ നമുക്ക് കളർ ഇപ്പോൾ കളർ കളറിൽ ഇപ്പോൾ വേറെ ഏതൊക്കെ ആണ് ഉള്ളത് വെറൈറ്റീ കളർ എന്ന് പറയുമ്പോൾ പൂക്കൾ ഏതൊക്കെ ആണ് ഉള്ളത്

ആ ബ്ല്യൂ കളർ മറ്റെ വാടാമല്ലി പൂവ് ഇല്ലേ റെഡ് അല്ലേ വാ അല്ല നമുക്ക് ബ്ല്യൂ കളറിലുള്ള പൂവ് ഏതെങ്കിലും ഉണ്ടോ ജമന്തി അല്ലേ അതെന്ത് അതെന്ത് വില വരുന്നുണ്ട് നൂറ്റിനാപ്പത് അല്ലേ ആ ചെണ്ടുമല്ലി എൺമ്പത് ആണല്ലെ ആ ഒക്കെ ആ അത് അത് അതും എടുത്തോളൂ രണ്ടു കിലോ എടുത്തോളൂ പിന്നെ അതുപോലെ തന്നെ അത് എത്ര അത് നല്ല വില ഉണ്ടോ ഒരു പീസിനു അല്ലേ ആ ആ ആ ആ പിന്നെ മറ്റെ റോസ് ഉണ്ടോ ഇതളായിട്ട് ഇതളായിട്ട് മതി കാരണം നമുക്ക് കളർ ആയിട്ട് ഇടാൻ ആണെ എന്തായാലും ഇതളായിട്ട് മതി മുന്നൂറ് അല്ലേ ആ അതൊരു അര അതൊരു അര കിലോ വേണം അര കിലോ മതി കാരണം ആ അല്ല അത് നമുക്ക് കുറച്ച് സെൻ്ററിൽ മാത്രം വെയ്ക്കാം ആ താമര വേണം ചേട്ടാ താമര താമരക്ക് എന്താ വില ഒരു പീസിന് ആണ് ഓ ഓ ഈ മുട്ട് മാത്രം ഒള്ളു മറ്റെ പൂവ് ആയിട്ട് ഉള്ളത് ഇല്ല ആ ശരി അതിനു എത്ര ആണ് ഒരു ഒരു പീസിന് എത്ര വരുന്നുണ്ട് പതിനേഴ് രൂപ അല്ലേ നമ്മൾ ഇത്രേയും ബൾക്ക് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കമ്മി ആക്കി ഒക്കെ തരില്ലേ വില ആ ആ നമ്മുടെ പരിപാടി നാളെ ആണ് അപ്പോൾ ഈ ഇന്ന് ഇപ്പോൾ എടുത്തിട്ടു പോകണോ അതോ നാളെ വന്നിട്ട് എടുത്താൽ മതിയോ ആ അപ്പോൾ പിന്നെ ഇപ്പോൾ തന്നെ എടുക്കാമല്ലേ ആ അപ്പോൾ കുറച്ച് ഫ്രെഷ് ആയിട്ട് കിട്ടുമല്ലേ

ആ ഒക്കെ എന്നാൽ പിന്നെ നിങ്ങള് നാളെ രാവിലെ നേരത്തെ വന്നിട്ട് പൂവ് എടുക്കാം എന്താണ് അഡ്വാൻസ് ആ അഡ്വാൻസ് ഞങ്ങൾ ഇപ്പോൾ തന്നിട്ട് പോവാം അപ്പോൾ എന്തെങ്കിലും ഡീസ്കൌണ്ട് ചെയ്ത് തരണം ആ ആ ശരി കുറച്ച് വെറൈറ്റീ പൂകള് എന്തെങ്കിലും കളർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വെയ്ക്കാം

ആ നമ്മൾ ഈ ഈ ചെണ്ടുമല്ലിയുടെ ഈ കളറുകൾ എല്ലാം ഒരു നാലു നാലു അഞ്ച് അഞ്ച് വീതം വെച്ചിട്ട് മാറ്റിവെച്ചിട്ടോളിൻ ആ കളറുകൾ എല്ലാം ഒരു അഞ്ച് അഞ്ച് കിലോ അതുപോലെ ജമന്തി വാടാമല്ലി എല്ലാം ഒരു മൂന്ന് കിലോ മ് അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ വന്നിട്ട് എടുക്കാം ശരിയട്ടൊ എന്നാൽ രാവിലെ വരാം